കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സാംസ്കാരികമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടുള്ളതാണ് ദഫ്മുട്ട് കോൽക്കളി അങ്ങനെ ഉള്ളത് നമ്മുടെ കേരളത്തിൻ്റെ മലബാർ ഭാഗങ്ങളിൽ ഭയങ്കര ഒരു പ്രശസ്തമായ ഒരു ഇതാണ് ഒപ്പനയും ദഫ്മുട്ടുമൊക്കെ അതൊക്കെയാണ് കോഴിക്കോടിനെപ്പറ്റി പറയാനുള്ളത് ഈ കോഴിക്കോട്ടിൽ സാംസ്കാരിക സാംസ്കാരിക അല്ലെങ്കിൽ കലാ കരകൗശല കരകൗശല സംഭവങ്ങൾ പല നല്ലൊരു പങ്ക് നമ്മുടെ പണ്ടത്തെ കച്ചവടക്കാർ വഹിച്ചിട്ടുണ്ട് അതിലൊരു മെയിൻ ആണ് അറേബ്യയിൽ നിന്ന് വന്ന കച്ചവടക്കാറാണ് ഇവിടെ അറേബ്യയിൽ നിന്ന് വന്ന കച്ചവടക്കാറാണ് ഇവിടെ പല തരത്തിലുള്ള പള്ളികളും ഒക്കെ നിർമിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കോഴിക്കോട് ഒരു മുസ്ലിം സമുദായം ആയിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഭക്ഷണവും ഭക്ഷണവും സംസ്കാരവുമൊക്കെ ഭയങ്കരമായിട്ട് മുസ്ലിം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിൽ ഈ ഈ ഈയൊരു കാലഘട്ടത്തിൽ പുതിയ തലമുറയിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം പുതിയ കുട്ടികൾക്ക് അങ്ങനത്തെ പഴയതിനോട് വലിയ താല്പര്യമില്ല അവർക്ക് പണ്ടത്തെ പുതിയ ന്യൂ ജനറേഷൻ ഡാൻസുകളും ഒക്കെയാണ് എല്ലാവർക്കും താല്പര്യം അതൊക്കെ നമ്മുടെ ഒരു കോഴിക്കോടിൻ്റെ സംസ്കാരത്തെ ഒരുമാതിരി കളിയാക്കുന്ന പോലെയുള്ളൊരു പ്രവർത്തനമാണ്